വിനോദത്തിനായി ഈ പിന്നെ ഓരോ സ്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മലയാളികൾ ആ ആണെങ്കിലും വേറെ ഏത് രാജ്യക്കാരാണെങ്കിലും എല്ലാർക്കും ഇഷ്ടപെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ എവിടെങ്കിലും കുറച്ച് ദിവസം ലീവ് കിട്ടിയാലോ എന്തെങ്കിലും ഓഫീസ് കാര്യമായിട്ട് ടൂർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് തന്നെ നമുക്ക് ഇപ്പോൾ യാത്രചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ യാത്രയിൻ്റെ യാത്രയില് സാഹസികമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായി ഈ സിപ് ലൈൻ പോലുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട് വെള്ളം കടലുണ്ട് പുഴകളുണ്ട് അങ്ങനെ ഒരുപാട് മൃഗശാലകള് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കടലൊക്കെ ആണെങ്കിലും കടലിൽ ഒക്കെ ആണെങ്കിലും കായലിൽ ആണെങ്കിലും ഹൗസ് ബോട്ടുകള് ഹൗസ് ബോട്ടുകള് ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കാണാം പുഴകളിൽ ഒക്കെ ആണെങ്കില് ആനകളെ കുളിപ്പിക്കുന്നത് കാണാം അതൊക്കെ നമുക്ക് ഒരു രസമാണ് കാണുമ്പോൾ തന്നെ ഒരു രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് പുഴകളിൽ ഒക്കെ കളിക്കാൻ എല്ലാർക്കും ഇഷ്ടമാണ് ചെറിയ കുഞ്ഞുമക്കൾക്ക് ഒക്കെ ആണെങ്കില് വെള്ളം കാണുമ്പോൾ നല്ല ഒരു ഇഷ്ടമാണ് കുഞ്ഞു മക്കൾക്ക് എന്ന് അല്ല ഇപ്പോൾ വലിയ ആൾക്കാർക്ക് ആണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും എല്ലാർക്കും വെള്ളം എന്ന് പറഞ്ഞ എല്ലാർക്കും ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്ക എന്നൊക്കെ പറയുന്നത്ന്നത് അത് ഏത് പ്രായക്കാർക്കും ഭയങ്കര ഇഷ്ടപെടുന്ന ഒരു കാര്യമാണ് കാഴ്ചകൾ കാണല് എന്ന് പറഞ്ഞാല് കുറെ പാമ്പുകളെ കുറിച്ചും മൈസൂർ ഉണ്ട് പിന്നെ സൂ മൈസൂർ സൂ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മൃഗങ്ങളും അങ്ങനത്തെ ഇതൊക്കെ ആയിട്ടുള്ളത് അവിടെ ഒക്കെ പോകാൻ ആർക്കാ താല്പര്യമില്ലാതെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വിനോദത്തിന് പോകുന്നത്